എൻ്റെ ചിത്രവരയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെറുപ്പ കാലങ്ങളിലൊക്കെ പെൻസില് സാധാ പെൻസില് ഉപയോഗിച്ചിട്ടായിരുന്നു അന്നതിനേറ്റവും വലിയ ഐഡിയകളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് പറഞ്ഞുതരാൻ ഒരാളില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെറു പ്രായത്തിൽ സാധാ പെൻസില് കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ വരച്ചിരുന്നു പിന്നെ ഒരു ഇതാകും തോറും നമ്മൾ ആശയങ്ങളെ ഒരു വിഷയത്തിനെ ബേസാക്കിയില്ലെങ്കിൽ ഒരു ആശയത്തിനെ ബേസാക്കിയിട്ട് നമ്മൾ വരക്കും മെയിനായിട്ട് ഞാൻ വരയ്ക്കാറുള്ളത് പ്രകൃതിയാണ് പ്രകൃതിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ളൊരു മേഖല ഈ ആ വരക്കാൻ കൂടുതൽ സുഖവും അതുപോലെത്തന്നെ ഒരുപാട് ഭംഗിയും എനിക്ക് തോന്നിപ്പിക്കുന്ന ഒരു മേഖല പ്രകൃതിയാണ് പിന്നെ സാധാരണ പോലെത്തന്നെ പേപ്പറ് പെൻസില് റബ്ബറ് ഷാർപ്പണറ് കളറ് ക്രയോൺസും ചിത്രം വരക്കുമ്പോൾ അധികം ക്രയോൺസ് പെൻസില്കളാണ് ഉപയോഗിക്കാറുള്ളത് അല്ലാതെ വലിയ പിന്നെ വരക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു രീതിയിൽ പെൻസിലിനെ കൊണ്ട് ഒരു ചെറിയൊരു സ്കെച്ച് രൂപത്തിൽ ഒരു മാർഗ്ഗരേഖ അത് ചെറിയൊരു ഷെയ്ഡിങ് പോലെ അങ്ങനെ വരച്ച് വെക്കും ഫസ്റ്റായിട്ട് പിന്നെ സ്കെച്ച് സ്കെച്ചല്ല കട്ടിയുള്ള പെൻസിലുപയോഗിച്ചുകൊണ്ട് പിന്നെ പിന്നെ അതിന് മോളിൽക്കൂടെ ഷെയ്ഡിങ്ങൊക്കെ കൊടുത്ത് ഷെയ്ഡിങ്ങൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് കട്ടി കൂട്ടി മായിക്കാനുള്ളതൊക്കെ മായിച്ച് അത്തരത്തിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് പിന്നെ കളറിംഗ് പെൻസില് കൊണ്ട് ഞാൻ വരക്കുമ്പോൾ അധികവും ക്രയോണോ അല്ലെങ്കിൽ പെൻസിൽ കളറോ ആണ് ഞാൻ അധികവും ഉപയോഗിക്കാറ് അതാണ് ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് സ്കെച്ചിനെക്കാളും ഏറ്റവും ഭംഗിത്തായി തോന്നുക ഈ ക്രയോൺ ഈ ക്രയോൺസോ അല്ലെങ്കിൽ പെൻസിലുകളായിരിക്കും പിന്നെ ഈ പ്രോസസ് എന്ന് പറയുമ്പോൾ പിന്നെ പറയാനുള്ളത് ഞാനീ അടുത്തായിട്ട് വരച്ച ഒരു ചിത്രം ഉണ്ട് ഒരു പ്രകൃതിയെ കുറിച്ചുള്ള ഒരു പുഴയരികിൽ നിൽക്കുന്ന ഒരു കൂട്ടുകാർ കൂട്ടുകാരല്ല ഒരു കപ്പിൾസ് അവരെ അവർ ചിത്രം അവർ പുഴയിൽ നോക്കി സംസാരിക്കുന്നതും പരസ്പരം സംസാരിക്കുന്ന ഒരു ചിത്രം അതുപോലെത്തന്നെ ഒരു തോണിക്കാരൻ അതിലെ പോകുന്നതും അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു അവസാനമായിട്ട് വരച്ചിരുന്നു അതിൽ ഞാൻ ഉപയോഗിച്ചത് ഈ പെൻസിൽ കളറാണ് അധികവും ഉപയോഗിച്ചത് ക്രയോൺസ് ഉപയോഗിച്ചിട്ടില്ല അതുപോലെത്തന്നെ ചാർക്കോളും ഉപയോഗിച്ചിരുന്നു ഷെയ്ഡിങ്ങൊക്കെ കൊടുക്കാൻ അല്ലാതെ ഇതൊക്കെയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന എൻ്റെ ചിത്രം വരയുടെ പ്രോസസ്സുകൾ